നമ്മുടെയുള്ള ആൾക്കാർ കൂടുതൽ ക്രിസ്ത്യൻസ് മുസ്ലീംസ് ഹിന്ദുക്കൾ ആ ഒരു മൂന്ന് ക്യാറ്റഗറിയായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത് അപ്പോൾ ഇവർ മൂന്ന് പേരും മൂന്ന് പള്ളികളിലും മൂന്ന് സ്ഥലത്താണ് അവരുടെ ദൈവങ്ങളും ആചാരങ്ങളും എല്ലാമിരിക്കുന്നത് ഹിന്ദുക്കൾ അമ്പലത്തിൽപ്പോകും ക്രിസ്ത്യൻ അവരുടെ പള്ളികളിൽപ്പോകും മുസ്ലിംസ് അവരുടേതായ പള്ളികളിൽപ്പോകും നമ്മൾ നിൽക്കുന്നത് ഇടുക്കി കുട്ടിക്കാനമെന്നുള്ള സ്ഥലത്താണ് ഈ സ്ഥലങ്ങളിൽ കൂടുതൽ കണ്ടു പോകുന്നത് ക്രിസ്ത്യൻസും മുസ്ലിംസുമായിട്ടുള്ള ആൾക്കാരുകളെയാണ് അല്ലാണ്ട് ഇപ്പം ഞാനൊരു മുസ്ലീമാണ് അപ്പം ഞങ്ങൾ പള്ളിയിൽപ്പോയി ചെയ്യുന്നത് ഞാൻ വെള്ളിയാഴ്ച്ചകളിൽ പോയി പള്ളി നിസ്ക്കരിക്കും അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യും അവിടെയുള്ള ക്രിസ്ത്യാനികളെല്ലാവരും ഞായറാഴ്ച്ച എല്ലാവരും പള്ളിയിൽപ്പോകും മൂന്നാല് കുർബാനകളുണ്ട് അതെല്ലാം കൂടും അങ്ങനെയെല്ലാം അവർ തുടർന്നു പോകും പിന്നെ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരമ്പലത്തിൽപ്പോകും രാവിലെ അതൊക്കെ ചെയുമ്പം അവർക്കൊരു ഫ്രഷ്നസ്സാണ് എന്നു വെച്ചാൽ നമ്മുടെ ലൈഫിൽ വല്ല ബുദ്ധിമുട്ടുകളോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പള്ളിയിൽപ്പോയി പ്രാർത്ഥിച്ച് കഴിയുമ്പം നമുക്കെല്ലാം കൊണ്ടൊരു മനസ്സിനൊക്കെയൊരു സുഖം കിട്ടും എല്ലാം നല്ലതിനാണ് അതു നമ്മൾ ചെയ്യുന്നത് പിന്നേ എല്ലാ കാര്യങ്ങളും പള്ളിയിൽ പോകുന്നതായാലും അമ്പലത്തിൽ പോകുന്നതായാലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മളാരെയും അതൊക്കെ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കരുത് പള്ളിയിൽ പോകുന്നാൾക്കാർ പള്ളിയിൽപ്പോകും ഇപ്പം ഞാൻ വെള്ളിയാഴ്ച്ചകളാണ് പള്ളിയിൽ പോകാറ് എനിക്ക് വേണമെങ്കിൽ ഡേയ്ലി അഞ്ച് നേരം പള്ളിയിൽപ്പോയി നിസ്കരിക്കാം പക്ഷേ അത് ഞാൻ ചെയ്യാറില്ല എനിക്കത് ചെയ്യണമെന്ന് നിർ എനിക്ക് ചെയ്യാം എന്നെയാരും നിർബന്ധിക്കാറില്ലത് ചെയ്യാൻ വീട്ടിൽ നിന്ന് പറയുമെങ്കിലും എൻറ്റിഷ്ടമാണത് ചെയ്യണോ വേണ്ടയോയെന്നുള്ളത് ഞാനത് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ചെയ്യും ഇടക്ക് ചെയ്യില്ല അങ്ങനെയാണെല്ലാ ആൾക്കാരും പോകുന്നത് ഇപ്പം ക്രിസ്ത്യൻസ് പള്ളിയിൽ പോയിക്കഴിഞ്ഞാൽ അവരൊരു മണിക്കൂറിൻറ്റെ കുർബാനകളുണ്ടാകും അപ്പം അതിനു മുന്ന് പല ആൾക്കാരും പള്ളിയുടെ പുറത്തായിട്ടും സൈഡിലായിട്ടും നിൽക്കുന്ന കാണാം കുർബാന കൂടിയെന്നു പറയുന്നതു കാണാം കുറേ ആൾക്കാർ പള്ളിയു ടുള്ളിലിരുന്നു കുർബാന ഉൾപ്പെടുന്ന കാണാം അപ്പം എല്ലാവരും വ്യത്യസ്തമായ ആൾക്കാരാണ് എല്ലാവരും സ്വഭാവങ്ങളും വ്യത്യസ്തങ്ങളാണ് ഇപ്പം അമ്പലത്തിൽപ്പോയാൽ അവർക്ക് പ്രത്യേകിച്ച് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമില്ല അമ്പലത്തിൽപ്പോയാൽ ഇപ്പം പ്രത്യേകിച്ചങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അവരവിടെപ്പോയി പ്രാർത്ഥിക്കും ഇപ്പം അവരവിടെപ്പോയി അവരുടേതായ പ്രതിഷ്ഠ ആചാരങ്ങളൊക്കെ ചെയ്യും ഇപ്പോൾ മുസ്ലിംസും ക്രിസ്ത്യൻസും വെച്ച് നോക്കുമ്പം ഹിന്ദുക്കളാചാരങ്ങൾ മൊത്തം ഡിഫ്രൻറ്റാണ് അവർക്കിങ്ങനെ പ്രാർത്ഥനയോ എന്നു വെച്ചാൽ പള്ളിയിലൊരാൾ നിന്ന് പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ അമ്പലത്തിലൊരാൾ നിന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ ഉള്ള ആചാരങ്ങളൊന്നുമില്ല അവർക്ക് പൂജ ചെയ്യുക അതിനായാലും അവർക്കിപ്പോൾ കഥകളായാലും ഹിസ്റ്ററി ആയിട്ടുള്ള സ്റ്റോറീസായിട്ടുള്ള ബുക്കുകളൊക്കെ ഉള്ളു അവരുടെ ദൈവങ്ങളിൽ അതിൽ പല ആൾക്കാരും പല ദൈവങ്ങളായിരിക്കും കുറേപ്പേരും ആരാധിക്കുന്നത് അവരുടെ ഈ ഹിന്ദുക്കളുടെയിടയിൽ കുറേ പള്ളികളും കുറേ അമ്പലങ്ങളും കുറേ ദൈവങ്ങളുണ്ട് അതിലെല്ലാ ആൾക്കാരും പല പല ദൈവങ്ങളാണ് ആരാധിയ്ക്കുക അതവരൊക്കെ കൂട്ടിനാളുകളിൽ ചില ആൾക്കാർ കുട്ടിനാൾ കേട്ട കഥകൾ വെച്ചാരാധിക്കും ചിലനാൾ ആൾക്കാർ പാരമ്പര്യമായിട്ട് ആരാധിക്കും ഇപ്പം ഹിന്ദുക്കൾ മുസ്ലിംസുകൾ ക്രിസ്ത്യാനികൾ എല്ലാവരുടേതാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു വേർതിരുവുണ്ട് ഇപ്പം മുസ്ലീങ്ങൾക്കാണെങ്കിൽ ഒരു ദൈവം എല്ലാവരുമൊരു ദൈവത്തിനിങ്ങനാരാധിക്കുന്നു ഇപ്പം ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ അവർ പല ദൈവങ്ങളെയും ആരാധിക്കും പല ദൈവങ്ങളേമാരാധിച്ച് പല ദൈവങ്ങളേയുമാരാധിച്ച് അവർ രണ്ട് മൂന്ന് ദൈവങ്ങളുണ്ട് ഈശോ മാതാവ് അങ്ങനെ അവർക്ക് അവരുടേതായ പള്ളികളുണ്ട് ഗ്രൂപ്പുകളുണ്ട് അങ്ങനെയുള്ള ക്യാറ്റഗറികൾ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഒരമ്പലങ്ങളും അവരതവരുടേതായ ക്യാറ്റഗറികൾ ഉത്സവങ്ങൾ ഇവിടെ പള്ളിയിൽ പെരുന്നാളും മുസ്ലിംസിന് നോമ്പെടുക്കാൻ പെരുന്നാൾ അവരുടേതായ ഫങ്ഷണൽ പരിപാടികളുണ്ട് എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തുടർന്നും തുടർന്നു പോകുന്നത് ഇപ്പോൾ കുറേ പേർക്കാണെങ്കിൽ പള്ളികളിൽപ്പോയി ഇപ്പം ഞാനൊരു മുസ്ലീമാണെങ്കിൽപ്പോലും ഞാൻ പള്ളികളിൽപ്പോയി അവിടുത്തെ പരിപാടികളൊക്കെ കൂടാറുണ്ട് അവിടുത്തെ പരിപാടികളൊക്കെ അടിപൊളിയാണ് ഹിന്ദുക്കളുടെ ഉത്സവം അതെല്ലാം നമ്മൾ കൂടും നമുക്കതിൽ വേർത്തിരിവില്ല നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവരും അതേ പോലെയാണ് കാണുന്നത് പക്ഷേ നമ്മൾ നമ്മളാരാധിക്കണേനെ നമ്മളാരാധിയ്ക്കുക മറ്റുള്ളവരെ കുറ്റം പറയാണ്ടിരിക്കുക അതാണ് എത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പം നമ്മൾ അതേ പോലെയൊക്കെ ചെയ്ത് അതേ പോലെയൊക്കെ ചെയ്ത് നമുക്ക് പറ്റാവുന്ന പോലെ തുടരാം അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്തെന്നു വെച്ചാൽ ഇപ്പോൾ ഇടുക്കി സൈഡിലാണെങ്കിലും ഇവിടെല്ലാൾക്കാരാണെങ്കിലും എല്ലാവരും ഇന്നത്തെ ഒരു ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് മുസ്ലീംസ് ക്രിസ്ത്യൻസാൾക്കാരെയാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നേ ഹിന്ദൂസാൾക്കാർ ചിലപ്പം ഉണ്ടാകാം എന്നാലും ഞാൻ കൂടുതലായിട്ട് ക്രിസ്ത്യൻസും മുസ്ലീംസിനെയാണ് കണ്ടിരിക്കുന്നത് ഹിന്ദൂസ് ഉണ്ട് പക്ഷേ കുറവാണ്